ചേട്ടന് ഞാൻ പിന്നെ ക്യാബ് ബുക്ക് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിയിൽ ഇത്ര സമയത്തിന് ഉള്ളിൽ തന്നെ എത്തണം എന്ന് അപ്പം അത്രയും സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിച്ചത് നമുക്ക് അത്രയും നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു അയാൾ ലേറ്റ് ആയിട്ടാണ് വന്നത് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോഴും ലേറ്റ് ആയി എൻ്റെ ഫ്ലൈറ്റാണ് മിസ് ചെയ്തത് നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടല്ലേ ഫ്ലൈറ്റ് നമുക്ക് അവിടെ മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ മുൻപ് തന്നെ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അതൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ടും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ഫ്ലൈറ്റും മിസ്സായി എൻ്റെ എത്ര എനിക്ക് എത്ര ലോസാണ് ഉണ്ടായേന്ന് അറിയാമോ ഈ ഒരു ഡ്രൈവർ കാരണം എങ്ങനെയാണോ നിങ്ങൾ ഡ്രൈവറെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്താ ഇപ്പം പറയുക ഒരു കസ്റ്റമർ കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് സ്പീഡിൽ വണ്ടി എത്തിക്കുകയല്ലേ ചെയ്യണ്ടേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതു കൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് എന്തൊരു ലോസാണ് ഉണ്ടായതെന്നറിയുമോ